ഇപ്പോൾ സമയത്തിനുള്ളിൽ ചെറുത് ചെയ്ത് തീർക്കുക എന്നതിനേക്കാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് കാരണമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുക്ക് ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽത്തന്നെ നമുക്ക് ജോലിയൊക്കെ തീർത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയുണ്ട് കാരണം എന്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും അങ്ങനത്തെ ജോലികളാണ് കൂടുതലായിട്ടും ഉണ്ടാകുക എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് ഒരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ തീർത്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ നമ്മുടെ ജോലിയിലൊക്കെ ഉണ്ടാകും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ അത് ചെയ്തുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലൊരു ഇതൊക്കെ ഉണ്ടാകും എന്താ പറയുക ഇപ്പം നമുക്ക് നല്ലൊരു പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും പക്ഷെ നമ്മൾ കുറേ കുറച്ച് കഷ്ടപ്പെട്ട് നമ്മൾക്കിപ്പം അവരോട് വെറുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽത്തന്നെ നമ്മൾ ഒന്ന് ക്ഷമിച്ച് കാര്യങ്ങളൊക്കെ തീർന്ന് കഴിഞ്ഞാൽ തന്നെ കൂടുതലായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഇത് കിട്ടുന്നയായിരിക്കും അപ്പം നല്ല രീതിയിൽ നമുക്കത് പൂർത്തീകരിച്ച് കൊടുക്കാനും വേണ്ടി സാധിക്കും